കർഷക ആത്മഹത്യ ഒഴിവാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് അത് ഉത്പാദിപ്പിക്കുമ്പോഴുള്ള കാലാവസ്ഥ വ്യതിയാനത്തില് സംഭവിക്കുന്ന പ്രശ്നങ്ങള് മറ്റൊന്ന് അത് വിപണനത്തിൽ ചെയ്യാൻ പറ്റാതെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ വേറൊന്ന് അണുക്കള് കീടാണു കീടശല്യങ്ങള് കൊണ്ടുള്ള പ്രശ്നങ്ങള് പിന്നൊന്ന് ഉദ്ദേശിച്ച രീതിയിലുള്ള വിളവ് അതിന്ന് കിട്ടാതിരിക്കാ വേറൊന്ന് കൃത്യസമയത്ത് അതിനെ നമുക്ക് പരിചരിക്കാൻ പറ്റാതെ വരിക അതിലുപരി മെയിനായിട്ടുള്ള പ്രശ്നം അതിൻ്റെ കൃത്യമായ വിപണനവും വിപണന എന്തായാലൂം സമയത്ത് കൃത്യമായ പൈസ കിട്ട കിട്ടലുമാണ് അത് കൃത്യമായി സാമ്പത്തികത്തിൽ ഊന്നിയിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് ഈ സാമ്പത്തിക പ്രശ്നങ്ങള് കർഷകർക്ക് വരാതിരിക്കാ ഇല്ലേ വരാതിരിക്കുന്നതിലാണ് കൽ കർഷക ആത്മഹത്യ ഒഴിവാക്കാനായിട്ടുള്ള ഏറ്റവും നല്ല രീതി ഹെൽപ് ലൈനുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹെല്പ് ലൈൻ വേണ്ടത് മെയിനായിട്ട് ഈ വക കാര്യങ്ങൾക്കൊക്കെ തന്നെയാണ് ആ ഹെല്പ് ലൈനുകള് വളരെ കുറവാണ് നാട്ടില് എല്ലാം സ്വന്തായിട്ട് കണ്ടെത്തി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു അവസ്ഥ ഇപ്പോഴും ഉണ്ട് സഹകരണ സംഘങ്ങളോ അല്ലെങ്കി കാർഷിക വിപണിനിലക്കെ ഇണ്ടെങ്കിലും ഇപ്പഴും പരമ്പരാഗത രീതിയിലുള്ള കാർഷിക രംഗമാണ് നിലനിക്കുന്നത് അതിനെയൊരു പ്രൊഫഷണൽ ടച്ചാക്കി മാറ്റിയിട്ടുള്ള രീതിയിൽ കൊണ്ടു പോകണമെങ്കിൽ അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം കൂടിയേ തീരു ഇത് കർഷക കുടുംബങ്ങൾക്ക് ഒരു കർഷകൻ ആത്മഹത്യ ചെയ്ത് ആ കുടുംബം പിന്നെ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിലുപരി അയാള് വരുത്തി വെച്ചിട്ടുള്ള സാമ്പത്തിക ബാധ്യതയാണ് ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രശനം